നെയ്ത്തിലും തുന്നലിലും സാധാരണയായി ഞങ്ങളുടെ പ്രോജക്റ്റുകളിൽ തുണികൾക്കു നിറം കൊടുക്കുന്നത് നൂലുകളിലാണ് നിറം കൊടുക്കുന്നത് നൂലുകൾക്ക് ഞങ്ങൾ നിറം കൊടുക്കും അതിനുശേഷം നിറമുള്ള തു നൂലുകൾ പാവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നല്ല കളറുകളിൽ പല ഡിസൈനുകൾ ഒക്കെ വേണ്ടുന്നതിന് നമ്മൾ നൂലുകൾക്കു കളർ കൊടുത്ത് പിന്നെ ഡൈ ചെയ്യുന്നതുണ്ട് തുണികൾ നമ്മൾ വെള്ള തുണി ഉണ്ടാക്കിയതിനു ശേഷം അതു കളർ ഡൈ ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അത് നല്ലൊരു ഇതാണ് കാരണം ഡൈ ഒരു തുണിയിൽ പല ഇത് ചെയ്യാനായിട്ട് തുണികൾ തിരിച്ചു കെട്ടി തുണി നെയ്തതിനു ശേഷം തിരിച്ചു കെട്ടി കളറിൽ ഡൈ ചെയ്ത് എടുക്കുന്നത് ഒരു രീതി നമ്മുടെ അതുണ്ട് അങ്ങനെ നമ്മൾ സാധാരണ ഡൈ ചെയ്ത് എടുക്കാറുണ്ട് പിന്നെ ഉള്ളതെന്നു പറഞ്ഞാൽ നമ്മൾക്ക് ഇതാണ് നമ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറുകൾ എന്നു പറയുന്ന ബ്ലാക്ക് വൈറ്റ് വയലറ്റ് ഗ്രീൻ പിങ്ക് പീച്ച് ഇതൊക്കെയാണ്